പാടുമ്പോള് പാട്ട് പാട്ട് പാടുക എന്നുള്ളത് എനിക്ക് ജീവിതത്തിൽ ഞാൻ ഏത് തനിച്ച് എത്ര ആൾ ആരുമില്ലാത്ത സമയത്തും ഇനി ആ എല്ലാവരും ഉണ്ടാവുന്ന സമയത്തും എനിക്ക് വേ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പാട്ട് പാടുക എന്നുള്ളത് ഏത് സ്ഥലത്താണെങ്കിലും ഞാന് പാട്ട് പാടിക്കൊണ്ടേയിരിക്കും പാട്ട് പാടുമ്പോൾ എനിക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളില് എനിക്കിഷ്ടം ഈ പാട്ടുപാടുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് അതായത് നമ്മുടെ ശബ്ദത്തെ ഞങ്ങള് കുറച്ചുംകൂടി മെച്ചപ്പെടുത്താന് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതായത് ഞങ്ങള് എങ്ങനെയാണോ പാട്ട് പാടുന്നത് ആ പാടുന്നതിനനുസരിച്ച് ആ ഒരു ആ ലൈന്സ് ആ ഒരു പാടുന്നതിനനുസരിച്ച് അതിനുവേണ്ട ശബ്ദം ഞങ്ങള് മാറ്റി മാറ്റി ചെയ്തു കൊണ്ടേയിരിക്കും അത് യു എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് ആ ഒരു അങ്ങനെയൊരു രീതി എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അതുപോലെ തന്നെ പാടുമ്പോള് ഞാന് ഒരുപാട് ശബ്ദം കൂട്ടിയെടുക്കാന് ശ്രമിക്കും അതുപോലെ തന്നെ പാടുന്ന സമയത്ത് എനിക്ക് എക്കോ വളരെ ഇഷ്ടമാണ് അതായത് എക്കോ ഇല്ലാത്ത രീതിയിൽ ഞാന് പൊതുവേ ഞാന് പാടൽ കുറവാണ് എക്കോ വേണം അതാണ് അതാണ് ഞാനാദ്യം പറഞ്ഞത് ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു റൂമില് തനിച്ചാണെങ്കിൽ അവിടുന്ന് ഞാന് പാടുന്ന സമയത്ത് ശബ്ദം കുറച്ച് കൂടുതലായിരിക്കും ആ സമയത്ത് എക്കോ ഉണ്ടാവും ആ എക്കോ അടിക്കുന്ന സമയത്ത് ഞങ്ങള്ക്ക് കൂടുതല് പാടാനുള്ള അതിലേക്ക് ഞങ്ങള് വീണ്ടും വീണ്ടും ഉല്ലാസം ആയിക്കൊണ്ടേയിരിക്കുന്നു പാട്ട് പാടുക എന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്നുള്ളത് എന്റെയൊരു കഴിവും അതുപോലെ തന്നെയൊരു കലയും കൂടിയാണ് അപ്പോൾ ഈ പാടുക എന്നുള്ളത് എന്റെ മാനസികമായ ഒരുപാട് സിറ്റുവേഷന് ഞാൻ ഒരു മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളില് ഞാനിങ്ങനെ നേരിടുന്നുണ്ട് അപ്പം ആ സമയത്ത് ഈ പാട്ട് പാടുക എന്നുള്ളത് മാനസികമായിട്ട് എനിക്ക് നല്ല പരിഹാരം തരാറുണ്ട് അതുപോലെ തന്നെ ശാരീരിക പ്രശ്നമാണെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ഒരുപാട് ടെന്ഷന്സ് എനിക്ക് വരാറുണ്ട് ആ സമയത്ത് എന്റെ ഫാമിലി ഇഷ്യൂസ് ആ സമയത്തൊക്കെ ഈ പാട്ട് പാടുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതായത് ഈ പാട്ട് പാടുമ്പോള് എന്റെ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നല്ല രീതിയിൽ അതിനെ ഓവര്കം ചെയ്യാന് പറ്റുന്നുണ്ട് എന്നുള്ളത് യാഥാര്ത്ഥ്യമാണ് പിന്നെ പാട്ടിന്റെ എനിക്ക് പാട്ട് പാടുമ്പോള് ഉപയോഗിക്കാന് പറ്റുന്ന ഏറ്റവും കൂടുതലിഷ്ടം അതായത് മൈക്ക്സ് ഈ മൈക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മൈക്ക് ഇല്ലാതെ പാടുക പാടും ഞാന് പക്ഷേ മൈക്ക് ഇല്ലാതെ പാടുമ്പോൾ അത്ര തൃപ്തിപ്പെടാറില്ല കാരണം പാടുന്ന സമയത്ത് അതിന്റെ മ്യൂസിക്കും പിയാനോ മൈക്ക് ആ ഒരു സ് വര്ക്കിങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഞാന് പാടുന്ന പാട്ടിന് കുറച്ചും കൂടി എന്നെ മെച്ചപ്പെടുത്തുന്നു എന്റെ ശബ്ദമായാലും എന്നെ മാനസികമായിട്ട് ആ പാട്ടിലേക്ക് മാത്രം തന്നെ ലക്ഷ്യം വെച്ച് വേറെ ഒന്നും ചിന്തിക്കാതെ അതില് കൂടെ തന്നെ എന്നെ ലക്ഷ്യം വെച്ച് ഈ മൈക്കും ഈ എക്കോവും അതെന്നെയിങ്ങനെ നയിക്കും അപ്പോൾ എനിക്ക് ശബ്ദം ഏതു രീതിയിൽ ഏതൊക്കെ രീതിയിൽ എന്നെ എന്നെനിക്ക് താനെ മനസ്സിലായി മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ പാട്ടുപാടുന്ന സമയത്ത് എന്റെ ചങ്ങാതിമാർ കൂട്ടുകാർ വീട്ടുകാർ അവരുടെയൊക്കെ പ്രോത്സാഹനം എന്നെ വല്ലാതെ സന്തോഷിക്കുന്നു സന്തോഷിപ്പിക്കുന്നു അതുപോലെ തന്നെ നാട്ടുകാർ ഒരുപാട് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ട് എന്റെ അടുത്തു വന്ന് നല്ല പാട്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ അവരുടെ പ്രോത്സാഹനം ആ പ്രോത്സാഹനമാണ് നമ്മുടെ നമ്മുടെ ഗായകത്തെ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തുന്നത് സ്വാഭാവിക ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അവന് എത്രത്തോളം കഴിവുണ്ട് എന്നതിലല്ല കാര്യം മ മറിച്ച് ഒരാള് എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുവോ അത്രത്തോളമാണ് അവന്റെ കഴിവ് എന്നുള്ളതാണ് അത് അത് എനിക്ക് സ്വയം അനുഭവപ്പെട്ട ഒരു ഫീലിങ്ങ് ആണത് അതേപോലെ തന്നെ പാട്ട് പാടുക പാട്ട് പാടുന്ന സമയത്തും ഏടി രീതിയിലുള്ള രീതിയാണെനിക്കിഷ്ടം അതായത് ഈ സാഡ് പാട്ടുകള് സങ്കടകരമായ പാട്ടുകൾ അതുപോലെ തന്നെ ഈ മാം മംഗല്യപ്പാട്ടുകൾ അതില് നിന്ന് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ സങ്കടകരമായ പാട്ടുകള് പാടുക എന്നുള്ളതാണ് അതാണ് ഞാന് നേരത്തെ സൂചിപ്പിച്ചത് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുന്ന സമയത്ത് സങ്കടകരമായ ആ ഒരു സമയത്ത് ഞാൻ ഈ സങ്കടകരമായ പാട്ടുകള് പാടുമ്പോൾ എനിക്ക് വല്ലാത്ത രീതിയിൽ അത് എന്നെ ഓവര്കം ചെയ്യുന്നുണ്ട് ആ മാനസികമായ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഈ പാട്ട് എന്നെ സഹായിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ പാട്ട് പാടുന്ന സമയത്ത് മറ്റുള്ളവരുടെ പ്രോത്സാഹനം കയ്യടി ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വല്ലാത്ത എക്സ്പീരിയന്സ് ആയ സംഭവം ആണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു ഗുണം എന്താണെന്ന് മനസ്സിലാവൂ അതില് പിന്നെ ആ ഒരു എക്സ്പീരിയന്സ് അതായത് ഞാൻ ഉറങ്ങും ഉറങ്ങാന് കിടക്കുമ്പോഴും ഞാൻ അങ്ങനെ ഉറങ്ങാന് കിടക്കുമ്പോഴൊക്കെ പാട്ട് പാടിയിട്ടാണ് ഉറങ്ങൽ സാധാരണ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരും സാധാരണ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും പാതിരാനേരം ആവും എനിക്ക് ഉറക്കം വരാന് മാനസികമായിട്ടും കുടുംബ പ്രശ്നങ്ങളും അപ്പോൾ ഇതൊക്കെ നേരിടുന്ന ഒരാളാണ് ഞാന് അപ്പം ആ സമയം അതുകൊണ്ട് തന്നെ പാടുന്ന സമയം ഈ പാട്ട് പാടുമ്പോൾ എനിക്കത് അതൊക്കെ എനിക്ക് മറ അതൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ എന്നെ മറികടന്ന് അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തന്ന് എന്നെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗാനം എന്നുള്ളത് ഞാന് പൊതുവേ പാടും രാത്രി ഉറങ്ങാന് കിടക്കുമ്പോൾ എത്ര ശ്രമിച്ചാലും എനിക്ക് ഉറക്കം വരാറില്ല പിന്നെ ആ ഉറക്കത്തിന്റെ ഗുളിക കഴിക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ കിഡ്നിക്ക് വലിയ കുറച്ചൊക്കെ പ്രശ്നമായ കാര്യമാണ് അതുകൊണ്ടുതന്നെ ഗുളികയൊന്നും കഴിക്കാറില്ല ഉറക്കം പാതിരാനേരം കഴിഞ്ഞിട്ടും അര്ധരാത്രി കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വരാതെ വരുമ്പോഴൊക്കെ ലൈറ്റും ഓഫ് ചെയ്ത് പാട്ട് പാടി കൊണ്ടേയിരിക്കും ആ ഒരു സമയത്ത് എന്നെ ഉറക്കത്തിലേക്ക് ഈ പാട്ട് എന്നെ ഇങ്ങനെ മയക്കി വീഴ്ത്തും ഞാന് പാടുമ്പോൾ എന്നെ തന്നെ മയക്കുകയാണെങ്കില് മറ്റൊരാള്ക്ക് ആര്ക്കുവേണ്ടെങ്കില് ആര്ക്കുവേണമെങ്കിലും ആരെ വേണമെങ്കിലും ഉറക്കാന് ഈയൊരു ഗാനം ഉപയോഗിക്കും ഈ ഗാനം സഹായിക്കും ഈ പാട്ട് എന്നുള്ളത് അത് മറ്റൊരാൾ പാടുന്നവര്ക്ക് മാത്രമല്ല മറ്റൊരാള്ക്ക് കേള്ക്കുമ്പോൾ അതൊരു ഭംഗിയായി തോന്നുമ്പോൾ പിന്നെ ആ പാടുന്നവനോട് വല്ലാത്തൊരു ഇഷ്ടം ഒരു പ്രേമം വരും സ്വാഭാവികമാണ് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ഓരോ ജീവിതവും ഈ ജീവിതത്തില് നിങ്ങള് പാട്ട് പാടുക എന്നുള്ളത് ഇപ്പം ഒരു പാട്ട് എന്ന് കേള്ക്കുമ്പോൾ എന്നെ ഓര്മ്മ വരുന്ന ആ ഒരു രീതിയിൽ എന്നെ എത്തിക്കാന് പാട്ട് എന്നെ സഹായിക്കട്ടെ എന്ന് ഞാന് പ്രാര്ത്ഥിക്കുന്നു അതുപോലെ തന്നെ ഗാനം അത് എന്റെ പ്രണ ഞാൻ ഏറ്റവും കൂടുതല് പ്രണയിക്കുന്നത് ഗാനത്തോടാണ് ഗാനം എന്നെ ഒരുപാട് സ ഒരുപാട് സിറ്റുവേഷന് ഈ സാഡ് സിറ്റുവേഷനിലൊക്കെ എന്നെ ഒരുപാടു സഹായിച്ച ഒന്നാണ് പാട്ട് പാടുക എന്നുള്ളത് ഞാനിങ്ങനെ പാട്ട് പാടുന്ന സമയത്തെന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവാറ് ഇടറാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ എന്റെ ടീച്ചര്മാർ അദ്ധ്യാപകന്മാർ അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ പറയും പ്രശ്നമില്ല സാരമില്ല അതൊക്കെ ശരിയാവും അങ്ങനെ വീണ്ടും ഞാന് അത് അതില് നിന്ന് മെച്ചപ്പെടാന് ഇങ്ങനെ വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ആ ശബ്ദം ഒക്കെ ക്ലിയർ ആയി ചൂട് വെള്ളം കുടിച്ചു ശബ്ദം ഒക്കെ ക്ലിയർ ആക്കി ഞാൻ ആ പാട്ടിൽ ആ ഒരു ശബ്ദത്തില് എന്നെ എനിക്ക് എത്രത്തോളം എനിക്ക് വളരാന് പറ്റുന്നുണ്ടോ ആ ഒരു ഉയര്ച്ചയിലേക്ക് ഞാന് എത്താന് ശ്രമിക്കുന്നു അങ്ങനെ ആ ഈ പാട്ട് പാടുക എന്നുള്ളത് എന്നെ ഏതൊക്കെ രീതിയിലും എന്നെ സഹായിക്കുന്ന ഒന്നാണ് എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആള്ക്കാരുണ്ട് നാട്ടിൽ എന്നെ വെറുക്കുന്നവരുണ്ട് എന്റെ ചങ്ങാതിമാർ പക്ഷേ ഈ പാട്ട് എന്ന രീതിയില് ഞാന് വലിയ വലിയ സ്റ്റേജിൽ ഒക്കെ പാട്ട് പാടിയപ്പോള് ഒരുപാട് ആള്ക്കാര് എന്നെ വെറുത്തവരും എന്നെ ഇഷ്ടപ്പെടാതെ എന്നെ അപമാന പച്ചയ്ക്ക് അപമാനിച്ച് പോയ നാട്ടുകാരും കുടു കുടു കുടുംബക്കാരും കൂട്ടുകാരൊക്കെ അപമാനിച്ച കൂട്ടുകാരൊക്കെ വലിയ വലിയ സ്റ്റേജില് പാട്ട് പാടി ഒരുപാട് ഉയര്ച്ചയിലേക്ക് എത്തിയപ്പോള് അവർ ഒക്കെ എന്നിലേക്ക് മടങ്ങി വന്ന് അവർ അവർ കുറ്റം സമ്മതിച്ച് എന്നോട് വീണ്ടും അടുപ് അടുക്കാന് തുടങ്ങി ഈയൊരു കാരണം ഈയൊരു സന്ദര്ഭം എനിക്ക് വല്ലാത്ത വല്ലാത്ത അഭിമാനവും സ്നേഹവും ഈ പാട്ടിനോടെനിക്ക് തോന്നി പാട്ടും അതും ഒരിക്കലും എന്റെ ജീവിതത്തില് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു എനിക്ക് എന്റെ ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹം ഒരു മഹത്തായ അനുഗ്രഹമാണ് ഈ പാട്ട് എന്നുള്ളത് ഞാന് എപ്പോഴും ഈ ദൈവത്തോട് പ്രാര്ത്ഥിക്കുന്ന സമയത്ത് ഞാന് കൂടുതല് കൂടുതല് ഈ ദൈവത്തോട് നന്ദി പറയുന്നു എനിക്ക് ഈയൊരു കഴിവ് തന്ന എന്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ദൈവത്തോട് നന്ദി പറയും ഇനിയും ഉയരാൻ എനിക്ക് സാധിക്കട്ടെ എനിക്ക് വീണ്ടും വീണ്ടും ഈ ഒരു കഴിവ് വീണ്ടും ഈ ഒരു ശബ് പാട്ടിന്റെ ഒരു ശബ്ദവും ഈണവും അതൊക്കെ ഒന്നും കൂടിയും മെച്ചപ്പെടത്തുവാന് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് ഞാന് തന്നെ എന്നെ തന്നെ ഞാന് ദൈവത്തോട് പ്രാര്ത്ഥിക്കുന്നു